ആ പറഞ്ഞുകൊള്ളൂ ആ ആ പറഞ്ഞുകൊള്ളൂ ആ ആ ഓ ഓ ഓ ഇപ്പം ഇപ്പോള് നിങ്ങള്ക്കൊരു വെയ്റ്റ് ഗെയ്നിനാണെങ്കില് ഇപ്പോള് നമ്മളൊരു ക്വാളിറ്റി ജിമ്മാണ് അപ്പോള് നിങ്ങള് ഫസ്റ്റ് ഞങ്ങള് നിങ്ങള്ക്കൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തുതരും അപ്പോളെന്ന് ആ ആ അതെ അതെ അപ്പോളെന്ന് പറഞ്ഞാല് ആ ആ അതെ അതെ അത് ഡയറ്റ് അത് വർക്കൗട്ട് പ്ലസ് ഡയറ്റാണ് നമ്മുടെ ഒരു മസിൽ ബിൽഡിംഗ് അല്ലെങ്കിലൊരു വെയ്റ്റ് ഗെയ്നിംഗില് അത് അല്ലാതെ ഇപ്പോഴൊരു ഫുഡ് ഫുഡ്ഡ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് മാത്രം ചെയ്യുക ഇത് രണ്ടുമുണ്ടെങ്കില് മാത്രമേ പ്രയോജനമുള്ളൂ നിങ്ങള്ക്ക് അപ്പം അണ്ടർ വെയ്റ്റായതു കൊണ്ടുതന്നെ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് വേണം അതായത് നിങ്ങളുടെ ബോഡി വെയ്റ്റിൻ്റെ ഡബിൾ കാലറീസ് നിങ്ങള് കൺസ്യും ചെയ്യണം അതെയതെ അപ്പോള് നിങ്ങള് ആ ആ ഇപ്പോള് നമുക്ക് ബോഡി വെയ്റ്റ് സ്ട്രെങ്ത് ട്രെയ്നിംഗ് കൂടെ ഇതിൻ്റെ കൂടെയുണ്ടാകും അപ്പോള് നമ്മുടെ ഓരോ ബോഡി പാർട്ടിനും നമ്മളോരോ ആ ഒരു മിനിമം ഒരു ത്രീ റ്റു ഫൈവ് വർക്കൗട്ട് നമ്മള് ചെയ്യണം അപ്പോള് നമ്മള് മൺഡേ റ്റു സാറ്റർഡേ ആണെങ്കില് അതിനൊരു സ്പ്ലിറ്റുണ്ട് ഇപ്പം തിങ്കളാഴ്ചയാണെങ്കിലൊരു ആ ചെസ്റ്റ് ട്രൈസ് ചൊവ്വാഴ്ചയാണെങ്കില് ബാക്ക് ബൈസ് പിന്നെ ലെഗ് പിന്നെ ആബ്സ് അങ്ങനെ ഷോൾഡര് അങ്ങനെയോരോ സ്പ്ലിറ്റിലാണ് നമ്മുടെ ജിമ്മത് പ്രൊവൈഡ് ചെയ്യുന്നത്

ആ ചെസ്റ്റ് റൗണ്ട് നമുക്ക് ഡംബൽ വെച്ചുള്ളതാണ് അതായത് ഡംബൽ ഫ്ലൈസ് ഡംബൽ പ്രെസ്സ് ചെസ്റ്റ് മെഷീൻ പ്രസ്സ് കേബിൾ ഫ്ലൈസ് ഇതൊക്കെയാണ് നമ്മള് പൊതുവേ ചെയ്യുന്നത് ആ അതെ അതെ ഇപ്പോള് കാലിന് വണ്ണം വെയ്ക്കാനായിട്ട് നമുക്ക് ഇപ്പം എന്താണ് ഇപ്പോഴെന്താണ് നമ്മുടെ ഒരു ഒരു ഇന്ത്യയിലെ ഒരു പ്രകൃതി വെച്ച് നമ്മുടെ ഒരു ലോവർ ബോഡിയെക്കാളും വലുതായിരിക്കും അപ്പർ ബോഡി പക്ഷേ അത് ഗേൾസില് അത് അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും കൂടുതലും ഗേൾസില് കണ്ടുവരുന്നത് വെയ്സ്റ്റിന് താഴേക്ക് വണ്ണം കൂടുതലായിരിക്കും ഇപ്പോള് നമ്മളീ ഫോട്ടോയിലൊന്നും കാണുന്നതുപോലെയുള്ള ഇത് നമുക്ക് ലോവർ ബോഡിക്ക് നമുക്ക് കിട്ടില്ല പക്ഷേ നമുക്ക് ലോവർ ബോഡിക്ക് സ്ട്രെങ്ത് ട്രെയ്നിംഗുണ്ട് അതായത് ലെഗ് പ്രസ്സ് പിന്നെ നമുക്ക് ബോഡി വെയ്റ്റ് സ്ക്വാർട്ടുണ്ട് അല്ലാതെ മെഷീൻ സ്ക്വാട്ടുകളുണ്ട് പിന്നെ കാഫിനുള്ള വർക്കൗട്ടുകളൊക്കെ നമുക്കുണ്ട്

ആ ഹാൻസ് എന്നുപറയുമ്പോള് ആംസല്ലേ ഉദ്ദേശിക്കുന്നത് ആണ് ആ ആംസിന്റേതെന്ന് പറയുമ്പോള് നമ്മുടെ ആംസ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഒരു ബൈസെപ്പും ട്രൈസെപ്പുമുണ്ട് അതായത് നമ്മള് കൈ നമ്മള് സാധാ പോലെ ഫ്ലക്സ് ചെയ്യുമ്പോള് ഉന്തിയിരിക്കുന്നതാണ് നമ്മള് സാധാ നമ്മള് ഫ്ലക്സ് ചെയ്യുമ്പോഴുള്ളത് ആ ബൈസെപ്പ് അതിൻ്റെ ബാക്കിലുള്ളത് ട്രൈസെപ്പ് അപ്പോള് നമ്മള് ഇതൊക്കെ ചെറിയ മസിലായത് കൊണ്ട് ഒരു റ്റു റ്റു ത്രീ വർക്കൗട്ട്സ് മതി ഇതിനൊക്കെ അതായത് നമ്മള് എന്താണ് ബൈസെപ്പ് കേള് ഹാമർ കേള് ട്രൈസെപ്പ് പുഷ് ഡൗണ് അങ്ങനത്തെ വർക്കൗട്ടൊക്കെയാണ് നമ്മള് നമുക്കിതില് ചെയ്താല് മതി

ആ ഓ ഓക്കെ ശരി ഓക്കെ വന്നുകൊള്ളൂ ശരി